ഞാൻ കൂടുതലും എടുക്കുന്ന ഫോട്ടോസെന്ന് പറയുമ്പം നമ്മുടെ ഇ പ്രകൃതീടെ ഓരോ ഫോട്ടോസാണ് അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ്ലക്കെ തെരുവിലക്കെ കാണുന്ന ആൾക്കാരക്കെയുണ്ടല്ലൊ അതുപോലുള്ള ഫോട്ടോസെട്ക്കത്തൊള്ളു കാരണം എന്ന് പറയുന്നത് പ്രകൃതീടെ ഫോട്ടോസ്ന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഈ ചില വണ്ട്കൾ കിളികൾ അതക്കെ വന്നിരിക്കുന്നത് അണ്ണെക്സ്പെക്റ്റടാണ് നമ്മൾ പ്രതിക്ഷിക്കാത്ത ചില പോസ്സ്കളായിരിക്കും രീതീലായിരിക്കും അവർ അവരിരിക്കുന്നത് അപ്പം അതക്കെ ഭയങ്കര ഡിഫ്രൻറ്റാണ് അങ്ങനെ അതു അതുകൊണ്ടത് വളരെ ഇഷ്ടമാണ് ക്യാ പിന്നെ ക്യാമറ കൊണ്ടെടുക്കുവാണെങ്കിൽ അതിൻറ്റൊരു ക്ലാരിറ്റീന്ന് പറയുന്നതും ഒരു ദൂരത്തിരിക്കുന്ന ഒരു പക്ഷിയെ നമുക്ക് അടുത്തിരിക്കുന്ന രീതീൽ നമുക്ക് ക്യാം വെച്ച് കാണാമ്പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ഫോക്കെസ് ചെയ്യുന്നത് അങ്ങനുള്ള ചെറിയ ചെറിയ ജീവികളെയാണ് അങ്ങനുള്ള സംഭവങ്ങളക്കെയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതീടെ ഓരോരൊ സംഭവങ്ങളുണ്ടല്ലൊ ചെടികളായാലും പുഴകളായാലും അങ്ങനോരോരോ ഭംഗികളുണ്ട് അപ്പം ആ ഒരു ഭംഗി നമ്മൾ നമ്മൾ ആസ്വദിക്കണല്ലൊ അതിന് വേണ്ടീട്ടാണ് കൂടുതൽ നമ്മൾ പ്രകൃതീടെ ഓരോ ഫോട്ടോസ്സ്കള്മ്മ കളക്ററ് ചെയ്യുന്നത് അതമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അപ്പം ക്യാമറേലെടുക്കുമ്പം ക്യാമറയെടുക്കുമ്പം നല്ല ക്ലിയറായ് ക്ലിയർക്കട്ടായിട്ട് ഒരു പോഷൻ ഒരു ഭാഗം നമുക് ക്ലിയറായിട്ട് കിട്ടും ഫോക്കസ് ചെയ്യുന്നത് ആ ക്യാമറ കൊണ്ട് ഫോക്കസ് ചെയ്യുന്നതെന്താണൊ അത് നമുക്ക് ക്ലിയറായിട്ടവടെ ലഭിക്കും പിന്നെ അതിന് വേലെ ആഹ അകലെയുള്ള എന്ത് എന്ത് ഒബ്ജക്റ്റായാലും എന്ത് സംഭവം എന്തൊരു കുഞ്ഞ് സാധനവായാപ്പോലും നമുക്ക് ക്യാമറയ്ക്കകത്ത് പക്ക ആയിട്ട് ലഭിക്കും ഇതിലൊരു സംശയോം വേണ്ട അതുപോലെ ക്യാമറയ്ക്കകത്ത് ക്യാമറേടെ ലെൻസ്സ് തന്നെ ഒരുപാട് വെ വ്യത്യസ്തരവാണ് അപ്പോൾ ചിത്രത്തിലൊരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ട് വരുത്താൻ കഴിയും ഏട് എഡി എഡിറ്റിങ് ചെയ്യുമ്പോൾത്തന്നെ ക്യാമറക്കകത്ത് പിക്ച്ചേഴ്സ് നല്ല ക്ലാരിറ്റി ആയിരിക്കും അപ്പം എഡിറ്റിങ് ചെയ്താലും നമുക്ക് വീണ്ടും കിട്ടുന്ന പിച്ചേഴ്സ്ന്നറയുമ്പോൾ ഒന്നുകൂടെ എഫക്റ്റ് കൂടിയ ചിത്രങ്ങളെ കിട്ടാറുള്ളു അത് കൊ എഫക്റ്റൊരിയ്ക്കലും കുറയാറില്ല പിന്നെ ഈ സ്ട്രീറ്റ് തെരുവിലിരിക്കുന്ന ആൾക്കാർ അവരുടെ ഫോട്ടോസ്ന്ന് പറയുമ്പം അതും വളരെ അണ്ണെക്സ്പെക്റ്റട നമ്മൾ സമൂഹത്തോട് വിളിച്ചു പറയാമ്പറ്റുന്ന കുറെ ഫോട്ടോസ് നമുക്ക് കിട്ടും അവരുടെ ആഹാരം കിട്ടാത്ത അവസ്ഥ വെള്ളം കിട്ടാത്ത അവസ്ഥ വസ്ത്രമില്ലാത്ത അവസ്ഥ ഇതക്കെ നമുക്കീ ക്യാമറയ്ക്കകത്തൂടെ ഒപ്പിയെടുത്ത് പുറംലോകത്തെ നമുക്കറിയിക്കാമ്പറ്റും ഇപ്പം അതക്കെ ഈ ക്യാമറക്കകത്ത് പതിയുന്നത് നമുക്കൊരു മനസ്സിന് സന്തോഷം തന്നെയാണ് കാരണം നമ്മൾ നമ്മൾ നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മളീ ക്യാമറയ്ക്കകത്ത് കിട്ടുന്നു ആ ക്യാമറേലൂടെടുക്കുന്നന്നെ അവരുടെ അവരുടെ മുഖത്തെ ഒരുപാട് വൈകാരിക മുഖങ്ങൾ നമുക്ക് അതിനകത്ത് പ്രതിഫലിപ്പിക്കും ഫയ്ൽ ഫോൺൽ ഫോൺലെടുക്കുവാണെങ്കിൽ അത്രേം ഒരിത് കിട്ടത്തില്ല പക്ഷേ ക്യാമറേൽ നമ്മുടെ നമുക്ക് ലഭിയ്ക്കണ്ട എല്ല ഡീറ്റെയ്ൽസും തൊട്ടുള്ള ഒബ്ജക്റ്റ് നമുക്കാ ക്യാമറയിലൂടെ ലഭിക്കും അതുകൊണ്ടന്നെ എനിക്കീ നെ പ്രകൃതീം അതുപോലെ ഈ തെരുവിലിരിക്കുന്ന ആൾക്കാരേം കൂടുതലായിട്ട് ക്യാമറയ്ക്കകത്ത് എടുക്കാനക്കെ കാരണം പിന്നെ ഒരുപാട് റീസൺസുണ്ട് ഇപ്പോൾ എന്ത മറ്റുള്ളൊരു ഇപ്പം തെരുവിലിങ്ങനെ നടക്കുന്നില്ലല്ലൊ നമ്മൾ അതിന്റെ ഒരു അവരെ അടിച്ച അടിച്ച് പുറത്താക്കി വീട്ടീന്ന് പുറത്താക്കിക്കഴിയുമ്പോഴുള്ള അവസ്ഥ അത് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കാൻ ക്യാമറയിലൂടെ കഴിയുന്നുണ്ട് അത് വളരെയൊരു കോൺഫഡാൻസ് കൂടിത്തന്നാണ് പിന്നെ ഞാൻ ചിത്രം എടുക്കാറുള്ളതെന്ന് പറയുമ്പം ഈ കലകളുടെ ഒക്കെ ഈ സ്പോട്സ്സ് ആർട്സ് അങ്ങനുള്ള സംഭവങ്ങളക്കെ എടുക്കാറുണ്ട് അതും കുട്ടികളുടെ കഴിവ് പുറത്ത് കൊണ്ടു വരാനുള്ളൊരു സംഭവമാണ് അത് ക്യ അത് ക്യാമറക്ക ഞാൻ പറഞ്ഞില്ലേ ക്യാമറക്കാത്തെട്ക്കുമ്പോഴുള്ള ഒരു പിച്ചർക്കോളിറ്റിയൊണ്ട് ആ കോളിറ്റി നമുക്ക് നമ്മളുടെ നാട്ടിലല്ല പുറം നാട്ടിലേക്കുള്ള ആൾക്കാർക്ക് നമ്മളിപ്പോൾ ഇൻഫൊർമേഷന് നമുക്ക് കൊടുക്കാൻ ഓരോരോ വിശദീകരണങ്ങൾ നമുക്ക് കൊടുക്കാമ്പറ്റും അതും ക്യാമറക്കതെടുക്കുന്നതിൽ ഇവർ തന്നെ നല്ല നല്ല ഡിഫറെൻസറിയാമ്പറ്റും ഓരോ കലകൾടേം ഫോട്ടോസ്സ് നമുക്ക് ക്യാം ആ ഫോ ആ ഒരു ക്യാൻവാസിലൂടെ പകർത്തിയെടുക്കുമ്പോൾ എന്തക്കെ എന്തക്കെയാണെന്നുള്ള കൂടുതൽ അവരെ മുഖത്ത് മുഖത്തെ ആ എക്സ്പ്രഷൻസ്സ് അവരുടെ ചാ കാലിന്റെ ചുവട് നൃത്തങ്ങൾ ഇതെല്ലം നമുക്ക് ക്യാമറക്കകത്തൂടെ ഉള്ള വിഷൻ എപ്പോഴും നല്ലതായിരിക്കും ഒരിക്കലുവത് മോശമാവില്ലല്ലോ പിന്നെ ക്യാ അ പിന്നിവടാണെ ക്യാമറാന്ന് പറയുമ്പം ഒരു ഫോൺനെ അപേഷിച്ച് ക്യാമറ എപ്പോഴും പക്ക ആയിരിക്കും ഒരു ഒരു ഒരു ചെറീയൊരു തെറ്റ് പോലും ക്യാമറേൽ വരത്തില്ല നമ്മളിപ്പം ഇ നമ്മൾ കണ്ണുകൊണ്ടെങ്ങനെയാണൊ കാണുന്നത് ആ ഒരു വിഷൻ തന്നെയായിരിക്കും നമ്മുടെ ക്യാമറക്കകത്ത് നമുക്ക് കിട്ടുന്നത് ഒരിക്കലുവത് മോശമാകരുത് മോശമാകില്ലല്ലോ മോശമാകാൻ വഴി ഒരു ചാൻസുവില്ലല്ലൊ ഇത്രെയുള്ളു